നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നതെന്നുവെച്ചാൽ ടഫ് ആയിട്ടുള്ളത് തന്നെയാണ് ഇത്രയും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കുട്ടികളെ കൊണ്ട് ഒത്തിരി ചുമടെടുപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം പാഠ്യപദ്ധതികൾ ഒക്കെ ആണെങ്കിലും ആവശ്യം ഉള്ളതും ആവശ്യം ഇല്ലാത്തതും ഒത്തിരി കാര്യങ്ങൾ ഇതിലോട്ട് കയറി വരുന്നുണ്ട് നമ്മൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുവാണെങ്കിൽ അതവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും അതിന് അവർ ഉൾകൊള്ള പക്ഷേ ഒത്തിരി ആയിക്കഴിയുമ്പോഴത്തേക്കിന് ഒന്നും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ ആയിട്ടാണ് തീർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ യൂറോപ്യൻ കൺട്രീസിൻ്റെ കൂടെയുള്ള സംസ്ഥാനത്ത് രാജ്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ അവിടെ ഒക്കെ ഇത്രയും പഠിക്കാനുള്ള ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കുട്ടികൾ ഇഷ്ടപ്പെടുന്നതും അവർ ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു പൗരൻ എന്തെല്ലാമാണ് ആവശ്യം ആ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ അതൊക്കെ ആയിരിക്കും അത് അത്രെയൊക്കെ മതി എന്നാണെൻ്റെ അഭിപ്രായം